ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ അങ്ങനെ വന്നിട്ടില്ല സാധാരണയായി പൊതുവായി കാണുന്നയിടങ്ങളിൽനിന്ന് സ്വരുക്കൂട്ടിയിട്ടുള്ള നാണയങ്ങളും കല്ലുകളും സ്റ്റാമ്പുകളൊക്കെത്തന്നെയാണ് പക്ഷെ കല്ലുകളുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് അത്യപൂർവ്വമായിട്ടുള കല്ലുകളൊക്കെ ലഭിച്ച ചില സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും ഇത് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു അല്ലെങ്കിലിതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഇതെങ്ങനെ ഈയൊരു സാഹചര്യത്തിലിവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഇത്ര അത്ഭുതകരമായി കാണുമ്പോൾ തോന്നുന്ന തരത്തിലുള്ള കല്ലുകളൊക്കെ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തണം പഠനം നടത്തേണ്ടത് ൻറ്റെ ഇതായ്ട്ടൊക്കെ ആവശ്യകതെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എങ്കിൽപ്പോലും അത്ര അത്യത്ഭുതകരമായൊന്നും തന്നെ അതിൽനിന്ന് കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല അതിൻറ്റെയൊരു ഉപഭംഗി എന്തുകൊണ്ടോ മനോഹരമായിരുന്നു എന്നത് മാത്രമുള്ളൂ അതിന് പുറമേ അതിന് വലിയ അത്ര പ്രത്യേക തരത്തിലുള്ള കല്ലുകളൊന്നും തന്നെ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല പിന്നെ മറ്റ് നാണയങ്ങളുടെയും സ്റ്റാമ്പ്കളുടെയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ചില സ്റ്റാമ്പുകളിലെ ചിത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറ കാര്യങ്ങളേക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന് സ്വമനസ്സാൽ നമുക്ക് തോന്നും ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗവേഷകർ അറിയാവുന്ന വ്യക്തികളോടൊക്കെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിൽനിന്നൊക്കെ നിരവധി അറിവുകൾ ലഭിച്ചിട്ടുണ്ട് പല സ്ഥലത്തെക്കുറിച്ച് അവരുടെ ആ ഒരു സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ നിരവധി അറിവുകൾ നൽകുന്ന ഒട്ടനവധി സ്റ്റാമ്പുകളിലൂടെ ഒക്കെ കടന്ന് പോവാൻ ഇടയായിട്ടുണ്ട് അത് നമുക്കറിവില്ലാത്ത ഒരു ജനതയെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവർ കടന്ന് പോയിക്കൊണ്ടിരുന്ന അവരുടെ അവർ കാത്തുസൂക്ഷിച്ച് പോയിക്കൊണ്ടിരുന്ന അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ അവിടെ ജീവിച്ച് പോന്നിരുന്ന ചരിത്രപ്രധാനമായിട്ടുള്ള വ്യക്തികളെക്കുറിച്ചുമൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റാമ്പുകളിൽനിന്നൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഗവേഷണത്തിന് പഠനത്തിന് വിധേയമാക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്റ്റാമ്പുകളൊക്കെ അപ്പോൾ പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വളരെയധികം അറിവുകളിലേക്ക് നമ്മെ നയിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെയൊക്കെ ഗവേഷണ പഠനങ്ങൾ പറയുമ്പോൾ പല സംസ്കാരങ്ങളെക്കുറിച്ച് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പല രീതിയിൽ നമ്മുടെ അറിവുകൾ വളർത്തിയെടുക്കാനുമൊക്കെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ നാണയങ്ങൾ അല്ലാതെ സ്റ്റാമ്പ്കളുടെയെക്കെ കുറിച്ചുള്ള അറിവുകളൊക്കെ നമ്മെ സഹായിക്കും അതുപോലെത്തന്നെ മറ്റൊന്നാണ് നാണയങ്ങൾ ഏറ്റവും കൂടുതൽ ഗവേഷണവും പഠനവുമൊക്കെ നടത്തേണ്ടി വന്നിട്ടുള്ളത് ഈ നാടക നാണയത്തിൻ്റെ മേഖലയിലാണ് കാരണം നമ്മുടെ കേരളത്തിൽനിന്ന് അനവധി കേരളത്തെ വെച്ച് നോക്കുമ്പോൾ പല രീതിയിൽ വ്യത്യസ്തമായ ഷെയ്പ്പ്കളിൽ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ കാണപ്പെടുന്ന നാണയങ്ങൾ പല രീതിയിൽ പല സ്ഥലത്ത് നിന്ന് ലഭ്യമായിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ലഭ്യമായിട്ടുള്ള ഈ നാണയങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൾ ഇവയിലുള്ള കാര്യങ്ങളും ഭാഷപോലും ചില സമയത്ത് നമുക്ക് അവരെന്താണതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ വിലയെത്രയാണ് ഇതും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ വന്ന സാഹചര്യത്തിലൊക്കെ ഒട്ടനവധി ഗവേഷണങ്ങളും പഠനങ്ങളുമൊക്കെ ഈ നാണയങ്ങളുടെ മേഖലയിലും നാണയങ്ങളെക്കുറിച്ച് നടത്തേണ്ടി വന്നിട്ടുണ്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കാണുകയും അവരുടെ സംഭാഷണങ്ങൾ കേട്ട് അവരുടെ എക്സ്പീരിയൻസുകൾ മനസ്സിലാക്കി അവരിൽനിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് പുസ്തകങ്ങളിൽനിന്നുള്ള വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ച് പല തരത്തിലുള്ള കാര്യങ്ങൾ ഗവേഷണ കാര്യങ്ങളിൽ ഗവേഷണം നടത്തേണ്ട തായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഗവേഷണ പഠനങ്ങൾ നടത്തേണ്ടി വന്നിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത് ഈ നാണയത്തിൻ്റെ മേഖലയാണ്